നമ്മളിപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ട് വരുന്ന ഒരു പ്രശ്നമാണ് പക്ഷി പനി എന്നുള്ളത് അപ്പോൾ നമ്മൾ അന്നേരം ഈ കോഴികളെ വളർത്തുമ്പോഴത്തേക്കിന് അതിൻറേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കോഴികളെ ഒക്കെ വളർത്തുമ്പോൾ നമ്മൾ കൂട്ടിലിട്ട് വളർത്തും പിന്നെ നമ്മൾ പലയൊക്കെ കെട്ടി മുറ്റത്തുകൂടെ ഒക്കെ ആണെങ്കിലും നമ്മൾ വളർത്തും പക്ഷേ തുറന്ന് വിടാൻ ഒക്കത്തില്ല തുറന്ന് വിട്ടുകഴിയുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു ശല്യം ആകുമെന്ന് വെച്ച് വിചാരിച്ച് നമ്മൾ അങ്ങനെ ഇറക്കി വിടാറില്ല പിന്നെ നമ്മൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ കോഴി കോഴി തീറ്റകളുടെ വില അതും ഒരു പ്രശ്നമാണ് പിന്നെ ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് പോലെ തന്നെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ബാധിച്ച് കഴിയുമ്പോഴത്തേന് അതിനെ കൊല്ലുവാനായിട്ടും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം നമുക്ക് അത് ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് പിന്നെ നമ്മൾ കോഴികൾക്ക് നമ്മൾ നമ്മുടെ കഴിവ് പോലെയെക്കെ ഭക്ഷണ ഈ തീറ്റകളൊക്കെ വാങ്ങിച്ച് കൊടുക്കും ഇപ്പം നമ്മളിപ്പം നിസ്സാരം നമ്മൾ എവിടെയോട്ടൊക്കെ രണ്ട് ദിവസത്തേക്കൊക്കെ മാറി നിന്നാലും നമ്മൾ നോക്കാനായിട്ട് നമ്മുടെ കുട്ടികളും ഹസ്ബൻഡും ഒക്കെ അതിനൊക്കെ തയ്യാറാണ് പിന്നെ ഇതൊക്കെ വളർത്തുമ്പോഴത്തേക്കിന് നമുക്ക് സാമ്പത്തികമായിട്ട് നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് കാരണം ഒരു കോഴിക്ക് ഇപ്പം അസുഖം പിടിച്ച് കഴിയുമ്പോഴത്തേക്കിന് അത് മറ്റുള്ള കോഴികളെ കൂടെ ബാധിക്കും അപ്പം നമ്മൾ അന്നേരം അതിന് ഈ അതിനായിട്ടുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഇതിനകത്തൊക്കെ നമ്മൾ കൊടുക്കുന്നൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പം ഈ പക്ഷിപ്പനി അങ്ങ് വരുമ്പോഴത്തേക്കിനും നമുക്ക് ചിലവ് കുറയും കാരണം വെച്ചാൽ ഈ ഈ വളർത്തുന്നവർക്കൊക്കെ ഈ ഇറച്ചി മേടിക്കാൻ വരുന്നവർക്കും മുട്ട മേടിക്കാൻ വരുന്നവർക്കും ഒക്കെ അവർക്കും ഒരു ബുദ്ധിമുട്ടാണ് അസുഖം ഉള്ള കോഴികളൊക്കെ ആണെങ്കിൽ അവർ അങ്ങോട്ട് വശത്തോട്ടേ വരത്തില്ല കാരണം എന്നുവെച്ചാൽ അവർ പറയും അവിടെ അവരുടെ വീട്ടിൽ പക്ഷി പനി കാണും അതിപ്പോൾ കോഴികൾക്കൊക്കെ ഇങ്ങനെ പക്ഷിപ്പനി ഉള്ളതുകൊണ്ട് ആ മുട്ട ഉപയോഗിക്കാൻ കൊള്ളില്ല അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഈ നമ്മൾ ഒരു പത്ത് കോഴിയെ വളർത്തുമ്പം നമുക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമെന്ന് വിചാരിച്ചിച്ച് അല്ലേ നമ്മൾ പത്ത് കോഴിയെ നമ്മൾ വളർത്തുന്നത് അപ്പം പത്തും ഇരുവതും മുപ്പതും നാൽപ്പതും അമ്പതും കോഴി വളർത്തുന്നവർക്കൊക്കെ സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കിന് അതൊരു വെല്ലുവിളിയാണ് കാരണം അത് അതുകൊണ്ട് ജീവിക്കുന്ന ഒത്തിരിയേറെ ആൾക്കാരുകളുണ്ട് ഈ പത്തും നാപ്പതും മുട്ടകളൊക്കെ ഒരുദിവസം കച്ചവടം ചെയ്യുന്നവർക്ക് അതിൻറേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും സ ചിലവായില്ലെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഓരോരോ സാമ്പത്തികമായിട്ടും ഇപ്പം നമ്മൾ നേരിടുന്ന ഓരോ വെള് വെല്ലുവിളികളും പ്രശ്നങ്ങളാണ് ഇന്ന് പിന്നെ മനുഷ്യൻ നമ്മൾ കോഴികളെ ഒക്കെ ഇറക്കിവിട്ടാലും അത് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാകാറുണ്ട് കല്ലെടുത്ത് എറിയുവോ അല്ലെങ്കിൽ വെഷം വയ്ക്കുവോ ഒക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ കോഴികൾ അത് വന്ന് കഴിച്ച് കഴിയുമ്പോൾ അതുങ്ങൾക്ക് ഉണ്ടാവുന്ന വിഷം കഴിച്ചുകൊണ്ട് ആവുമ്പോഴത്തേക്കിന് അതുങ്ങൾ ചത്തുപോകുന്നത് നമ്മൾ അറിയയില്ല പക്ഷേ നമ്മൾ ഓർക്കും എന്തെങ്കിലും അസുഖം ഒക്കെ വന്ന് ചാകുന്നതായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കും പിന്നെ നമ്മുടെ ഇങ്ങനെ കോഴികളെ ഒക്കെ വളർത്തുമ്പോഴത്തേക്കിന് നമുക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് ഒരു മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമ്മുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി നമുക്ക് ആ സ പൈസ ഉപയോഗിക്കാം എന്നൊക്കെയാണ് എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ ഇതുങ്ങളെ വളർത്തുന്നതൊക്കെ എപ്പോഴും ഒരാളെ തന്നെ ആശ്രയിക്കേണ്ടല്ലോ ഇതുങ്ങളെ നമ്മൾ കോഴികളെ ഒക്കെ വളർത്തുമ്പോൾ കോഴികളെ ഒക്കെ ആണെങ്കിലും മൃഗങ്ങളെ ഒക്കെ ആണെങ്കിലും നമ്മൾ വർത്തുമ്പോഴത്തേക്കിനും നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണല്ലോ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അപ്പം നമുക്ക് എന്തെങ്കിലും ഒക്കെ നേരിടുമ്പോഴത്തേക്കിന് നമുക്കും പ്രശ്നമാണ് മറ്റുള്ളവർക്കും പ്രശ്നമാണ്